ആ സൈബര് ഭീഷണിയും സോഷ്യല് മീഡിയ ട്രോളിങ്ങും അറിയാമോന്നു ചോദിച്ചിട്ടുണ്ടേല് ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുടെങ്കില് ഇതൊന്നും അറിയാത്ത ആള്ക്കാര് വളരെ കുറവായിരിക്കും ഇപ്പം ട്രോളിങ്ങോന്നും നമുക്കു വലിയ അതായത് ട്രോള് ഇപ്പം അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല പക്ഷെ പിന്നെ അതായതു പിന്നെ സോഷ്യല് മീഡിയ അതായത് സൈബര് ഭീഷണി അങ്ങനയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇപ്പം ഭയങ്കര പ്രശ്നം നമുക്ക് തന്നെ അറിയാം ഇപ്പം ഈ സമയത്ത് ഇപ്പം നമുക്ക് വാര്ത്ത കണ്ടവര്ക്കൊക്കെ നല്ലോണം അറിയാന് പറ്റും ഇപ്പം എന്നു വച്ചിട്ടൊണ്ടെങ്കിൽ അതായത് ലോണിൻ്റെ ഒരു പരിപാടി അതായത് ഫോണിലൂടെ അതായത് ഫേസ് ബൂക്കിലൂടെ ലോണ് അത് ഇപ്പം അയ്യായിരം രൂപ കൊടുക്കൂന്നു പറയും എന്നിട്ട് അതില് ഒരു മൂവായിരം രൂപയെ കൊടുക്കുള്ളൂ പിന്നെ എന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് കൊടുക്കണം എന്നോക്കെ പറഞ്ഞു പിന്നെ ഭീഷണിപ്പെടുത്തും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പര് അതായത് അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കും അപ്പം അവരുടെ ഫോട്ടോ ഒക്കെ മോര്ഫ് ചെയ്തു അതായത് വേണ്ടാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടു പിന്നെ പലര്ക്കും അയച്ചുകൊടുക്കും അപ്പം അവരുടെ കോണ്ടക്ടില് ഉള്ളവരുടെ വീട്ടുകാര്ക്കും കാര്യ അങ്ങനയുള്ളവര്ക്കൊക്കെ ഇവരുടെ നഗ്നമായ ചിത്രങ്ങള് അയച്ചുകൊടുത്തിട്ടു അതായത് ഇത്ര പൈസ തന്നില്ലെങ്കില് എല്ലാവർക്കും അയച്ചുകൊടുക്കും എന്ന് പറയും കുറെ പൈസ കൊടുക്കും പിന്നെ പൈസ കിട്ടാതെ അതായത് പൈസ ഇല്ലാതാവുമ്പോൾ അവര് ആത്മഹത്യ ചെയ്യും ഇപ്പം ഇപ്പം അടുത്ത് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തത് എനിക്ക് പിന്നെ എനിക്ക് അതായത് എൻ്റെ ഒരു കസിൻ്റെ പിന്നെ ഹസ്ബണ്ട് ആണ് അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കില് അതൊക്കെ മാക്സിമം നമ്മള് പിന്നെ സൂക്ഷിക്കണം അതായത് നമ്മള് ഈ പിന്നെ നെറ്റ് ഉപയോഗിക്കുമ്പോള് തന്നെ നമ്മള് മാക്സിമം സൂക്ഷിക്കണം നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാന് നമ്മള് തന്നെ ശ്ര ശ്രദ്ധിച്ചാല് നമുക്ക് അങ്ങനയുള്ള മോശം അനുഭവങ്ങള് കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല